ഇപ്പം ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാന് മെയിൻ ആയിട്ട് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാലും വെല്ലുവിളികള് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങങ്ങളില് ഇപ്പം ലോക്ക്ഡൌണ് കാലത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഫ്രീ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറേ വരയ്ക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടു മാത്രമാണ് നമുക്ക് വരയ്ക്കാന് പറ്റാത്തത് ഇപ്പം നമുക്ക് എന്തെങ്കിലും വരയ്ക്കണമെങ്കില് ഇപ്പം ഒരു പെന്സിൽ വാങ്ങണമെങ്കിൽ തന്നെ കടകൾ കാര്യങ്ങളൊക്കെ തുറക്കണം അപ്പം നമുക്ക് ഇപ്പം കടകൾ കാര്യങ്ങള് ഒന്നും തുറക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു ആ ടൈമിൽ അപ്പം അത് എനിക്കൊരു വെല്ലുവിളി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മള് വെറുതെ ഇരിക്കുന്ന കുറേ ടൈമുകളായിരുന്നു ആ സമയങ്ങളില് ഒക്കെ എനിക്ക് നല്ല രീതിയിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരയ്ക്കാനും കുറേ അവസരങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിലും ബട്ട് അതൊന്നും വരയ്ക്കാന് പറ്റാത്ത ഒരു അവസ്ഥയില് ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ മൈന്ഡിലും കാര്യങ്ങളിലൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയം നമ്മുടെ ഒഴിവ് സമയം ആയിരുന്നു നമ്മളെ കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈം ആയിരുന്നു അപ്പം അവരുടെ മുന്നിൽ നിന്നൊക്കെ ഒരു ചിത്രം വരച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ അവര്ക്കും ഒരു സന്തോഷം ഒക്കെ ആയേനെ പക്ഷേ ആ ടൈമിലൊന്നും എനിക്ക് ഒരു സാധനവും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഒരു സാധനവും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു